പോളിയോ എന്ന് പറയുന്നതൊരു വയറസ്സ് രോഗമാണ് പോളിയോ വയറസ്സാണ് ഈ രോഗത്തിന് കാരണം കുട്ടികളിൽ പോളിയോ വാക്സിനെന്ന് എക്കുക എന്നതാണ് ഇതിൽനിന്ന് രക്ഷപ്പെടാനുള്ള ഏകമാർഗ്ഗം ജനിക്കുമ്പോൾ ഉടൻ തന്നെ കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ നൽകുന്നുണ്ട് ഇന്ത്യ പോളിയോ വിമുക്തമായ ഒരു രാജ്യമാണ് പോളിയോയിൽനിന്ന് കുട്ടികളെ സംരക്ഷിക്കാം നമ്മുടെ ഗ്രാമത്തിലെ ആളുകൾ കൃത്യമായിട്ട് ആരോഗ്യപ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം വാക്സിനെടുക്കുക എന്നതാണ് കുട്ടികൾക്ക് വാക്സിനെടുക്കാതിരുന്നാൽ ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അവരുടെ രക്ഷാകർത്താക്കൾക്ക് പറഞ്ഞുമനസ്സിലാക്കിക്കൊടുക്കുവാൻ ആരോഗ്യപ്രവർത്തകർക്ക് കഴിയും പോളിയോ എന്ന് പറയുന്നത് പണ്ടുകാലത്ത് നമ്മുടെ ഇന്ത്യയിൽ ധാരാളമായിട്ട് കുട്ടികളനുഭവിച്ചിരുന്ന ഒന്നാണ് കൃത്യമായ ആരോഗ്യപരിചരണത്തിലൂടെയും വാക്സിനുകളിലൂടേയും നമുക്കീ രോഗം ഇന്ന് തുടച്ചുമാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ചില ഗ്രാമങ്ങളിൽ ഇന്നും പോളിയോ രോഗം ആ ഉണ്ട് അതിനായി നമ്മൾ ചെയ്യേണ്ടത് പോളിയോയുടെ വാക്സിൻ കൃത്യമായ ഇടവേളകളിൽ കുട്ടികൾക്ക് എടുക്കുക എന്നുള്ളതാണ് വാക്സിനെടുക്കുക എന്നുപറഞ്ഞാൽ ആരോഗ്യപ്രവർത്തകരുടെ നിർദ്ദേശ പ്രകാരം എടുക്കുകയെന്നുള്ളതാണ് വിദ്യാഭ്യാസമില്ലാത്ത രക്ഷിതാക്കൾക്ക് ഈ വാക്സിനെകുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കികൊടുക്കുകയും കുട്ടികളത് എടുക്കുകയും എടുക്കുകയും ചെയ്യണം